ശരീരഭാരം കൂട്ടാൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാരം കൂട്ടാൻ വേണ്ടി നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചതിനുശേഷം എന്തു ചെയ്യാം നമ്മൾ എന്താ പറയുക ഇപ്പോൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരഭാരം കൂടും നമ്മൾ വേറൊരു പണിയെടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിത്തത്തടിയെന്നൊക്കെ പറയും അങ്ങനെ ശരീരഭാരം കൂട്ടാം പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ശരീരഭാരം കൂട്ടാം നമ്മുടെ മസിൽസൊക്കെ നല്ല അടിപൊളി ആയിട്ട് നല്ലരീതിയിൽ വരാനും പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരഭാരം കൂട്ടാം നമ്മൾ നല്ലവണം ഫുഡ്ഡ് കഴിക്കുക അതാണ് മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് ബീഫ് പന്നി പിന്നെ നേന്ത്രപ്പഴം നല്ല രീതിയിൽ നല്ല ഏത് നമ്മൾ എന്താ പറയുക വെറുതെ ഇരിക്കാണ്ട് നമ്മൾ ഭക്ഷണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് തടി കൂടും അങ്ങനേയും തടി കൂട്ടാം പിന്നെ നല്ലവണം ഇത് കഴിക്കുന്നതിന് അനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരും നമുക്കിപ്പം കൊളസ്ട്രോൾ പ്രെഷർ ഇതെല്ലാം വരും ഈ ബീഫ് ഒക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊളെസ്ട്രോളിൻ്റെ മെയിൻ ഒരു സാധനമാണ് നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണമാണ് തടി കൂട്ടാൻ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യുക ഇത് കഴിക്കുന്നതിനനുസരിച്ച് രാവിലെ എണീറ്റ് ഓടുക അപ്പം എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തടി കൂട്ടാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ശരീരം അതനുസരിച്ച് പ്രാപ്തമാകും അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്